ആ നമസ്ക്കാരം പറയൂ അതെ അതെ അതെ അതെ സാർ അത് നമ്മള് നമ്മൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ് സാർ അത് നമ്മള് കൂടുതല് പ്രോഡക്ടാണ് എന്നുള്ള ഒരു ഫുൾ ഫാമിലി കവറേജ് ആണ് വരുന്നത് സാർ ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും മെഡിക്കൽ കവറേജ് എടുത്തിട്ടുണ്ടോ അത് മെഡിക്കൽ അല്ല സാർ അത് അത് ലൈഫ് ഇൻഷുറൻസ് ആണ് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അതില് ക്ലെയിം കിട്ടുകയുളളു ഇത് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാറിൻ്റെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ നമ്മള് ഫിനാൻഷ്യൽ സ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും വലിയ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ഒരു ടെൻ ഡേയ്സ് കിടക്കേണ്ടി വന്നാൽ മിനിമം ടെൻ ടു ഫിഫ്റ്റീൻ തൗസന്റിൻ്റെ അടുത്ത് ബില്ല് വരുന്നുണ്ട് ഒരു ഒരു ഫാമിലി ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്നതില് ഒരു പെട്ടെന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഡേമെയ്ജിൽ നിന്ന് സാറിന് രക്ഷപ്പെടാൻ പറ്റും ഇൻഷുറൻസ് വരുന്നത് നമുക്ക് സാറിൻ്റെ ഫാമിലിയിൽ സാറ് മാരീഡ് ആണോ ആ സാറെ കണ്ടാൽ പറയില്ല കേട്ടോ സാറെ അപ്പോൾ എങ്ങെനെയാണ് സാറ് സാർക്ക് മാത്രമാണോ എടുക്കുന്നത് അതോ പേരെന്റ് സിന് എടുക്കുന്നുണ്ടോ

അത് ഞാൻ ചോയ്ക്കുന്നത് സാറ് ഇന്റിവിജ്വൽ പോളിസിയാണോ എടുക്കുന്നത് അതോ പേരന്റിനേയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഓക്കേ നമ്മുക്ക് ഓക്കേ സാർ അപ്പോൾ നമ്മുക്ക് അങ്ങനെയാണെങ്കിൽ പേരന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഫാദർ ഫാദറിൻ്റെ എയ്ജും ഫാദറിൻ്റെ പേരിലാണ് പോളിസിയും വരിക അത് ഹോസ്പിറ്റലിൽ നിന്ന് എന്നൊരു കാറ്റഗറിയിലാണ് വരിക ഉണ്ട് സാറേ അച്ഛനും അമ്മയും സാർക്കും ചേർത്തിട്ടുള്ളത് അപ്പോൾ അച്ഛൻ്റെ എയ്ജ് എത്ര ഉണ്ടാവും സാറെ ഒരു ഫിഫ്റ്റി എബോവ് ഉണ്ടാവില്ലേ എന്തായാലും ഓക്കേ ഓക്കേ നിങ്ങക്കപ്പോൾ ഈ ഫാമിലി ഇൻഷുറൻസ് ആവുമ്പോൾ ഞങ്ങള് മിനിമം പ്രൊവൈഡ് ചെയ്യുന്ന ടെൻ ലാഖ്സിൻ്റെ പോളിസി ആണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫൈവ് എബോവ് വരുന്ന സിസ്റ്റി എബോവ് വരുന്നവർക്ക് ക്ലെയിം എമൗണ്ട് വരുന്നത് വൺ ഇയറിന് വൺ ലാഖ് സിസ്റ്റി ഫൈവ് തൗസന്റ് ആണ് ക്ലെയിം വരുന്നത് ടെൻ ലാഖ് വരെയാണ് കവറേജ് വരുന്നത് ബാക്കി നമ്മുടെ ഇൻഷുറൻസിൻ്റെ നോർമൽ എല്ലാ ഇൻഷുറൻസിലുള്ള പോലുള്ള വെരിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മള് ഇൻഷുറൻസ് ഉദ്ധ്യോഗസ്ഥനെ വിളിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ നമ്മൾ എന്നാണോ എടുക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് മാക്സിമം കവറേജ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിലെ ഒര് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണാം നമുക്ക് കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മളെ ഈ കമ്പനിയുമായിട്ട് ടൈ അപ്പിലാണ് അതുകൊണ്ട് നിങ്ങള് നെറ്റ്വർക്കിൽ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലെ എല്ലാ ഹോസ്പിറ്റലിലും വരുന്നുണ്ട് ഇത് എല്ലാത്തിലും നമുക്ക് സാർക്ക് ക്യാഷ് ലിസ്സില് സാറെ ഇൻ കേസ് എന്തെങ്കിലും അസുഖം കൊണ്ട് ഏത് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവുകയാണെങ്കിലും നമ്മുടെ പോളിസി കാർഡ് വരുന്നുണ്ട് സാറ് കാർഡ് സബ്മിറ്റ് ചെയ്താൽമതി പേയ്മെന്റ് ചെയ്യണമെന്നില്ല ഇപ്പോൾ പിന്നെ അഥവാ നമ്മുടെ ഇപ്പോൾ ആ ഫുൾ കവറേജിൽ ഇല്ലാത്ത ഏതെങ്കിലും ഹോസ്പിറ്റൽ ആണോ സാർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽ സബ്മിറ്റ് ചെയ്താൽമതി സാറിന് നമുക്ക് തെർട്ടി ഡെയ്സിനുള്ളിൽ സാറിന് നമുക്ക് അതിൻ്റെ റീയിൻബർസ്മെന്റ് ഇട്ട് തരാൻ പറ്റും അത് പിന്നെ സാറ് അല്ല സാറ് നമുക്ക് ഈ ഇയർലി ഇയർലി പേയ്മെന്റ് ആണ് വരുന്നത് ഒരു വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസന്റാണ് ഇയർലി പേയ്മെന്റ് വരുന്നത് നമുക്ക് ഇതില് ഇല്ല സാറേ ഞാൻ പോളിസി എടുക്കുന്ന അന്നുതന്നെ ഫുൾ എമൗണ്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും സാറെ ഇതില് ഈ പേയ്മെന്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഈ വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസന്റ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഇല്ല സാറ് ആ എമൗണ്ട് എന്നാണോ സാർ പോളിസി എന്നാണോ സാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം തരേണ്ടി വരും നമുക്ക് ക്യാഷ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള ഓപ്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ സാർ ബേങ്ക് ചെക്കാണോ അങ്ങനെ അല്ല സാറേ അങ്ങനെ ചെക്കാണ് തരുന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയുടെ പേരില് സാറ് ചെക്ക് തന്നു കഴിഞ്ഞാൽ ചെക്ക് എന്നാണോ സാങ്ക്ഷൻ ആവുന്നത് അന്നേ നമുക്ക് പോളിസി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ സാറിൻ്റെ ചെക്ക് തന്നാൽ നാളെ നമുക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് നാളെ തന്നെ സാങ്ക്ഷൻ ആവുകയാണെങ്കിൽ നമ്മള് നാളെ പോളിസി ആക്ടിവേഷൻ ചെയ്യും അതില് ഓക്കേ ഓക്കേ ഓക്കേ നമ്മളെ ഇതില് ബാക്കി ഡീറ്റെയിൽസ് നമ്മള് സാറിൻ്റെ നമ്മൾ എവിടേയും പേർസണൽ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം സാറെ അത് ആ ഫോമിൽ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ആ അഡ്രസ് പ്രൂഫ് വേണം അതില് സാറേ അച്ഛൻ്റെ പേർക്കാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പാൻ കാർഡ് വേണം നമ്മളെ ഈ അച്ഛന്റേയും അമ്മയുടേയും സാറിന്റേയും ഹൈറ്റ് വെയിറ്റ് ഏജ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ മുന്നേ എന്തെങ്കിലും മേജർ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓക്കേ ഓക്കേ ഓക്കേ ഞാൻ സാറിന്റെ ആ ഡീറ്റൈൽസും വാട്സ്ആപ്പ് ചെയ്യാം നമ്മള് അതില് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമുക്ക് ക്ലെയിമും കാര്യങ്ങളും ഉള്ളതെന്നുള്ളത് ആ ഡീറ്റെയിൽസ് ഞാൻ സാർക്ക് അയച്ച് തരാം സാർ നോക്ക് കാരണം ഇപ്പോൾ ആ പറഞ്ഞോളൂ സാർ ഓക്കേ ഓക്കേ ഓക്കേ സാർ ഓക്കേ താങ്ക് യു ഓക്കേ ഓക്കേ സാർ നിങ്ങള് ഓൺലൈൻ പേയമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നാളെ തന്നെ സ്കീം ആക്റ്റിവേഷൻ ആക്കാം ശരി ശരി താങ്ക്സ് താങ്ക് യു സർ